ഒരു മിനിറ്റ് ഹലോ ആ പറഞ്ഞോളൂ ആ ഓക്കെ സാർ

അങ്ങനെ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ടൂ വീലർ ഒക്കെ ഇപ്പോൾ എല്ലാ വണ്ടിയും അവൈലബിൾ ആണ് അപ്പോൾ സാർ ഏതൊക്കെ വണ്ടികളാണ് നോക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും

ആ ഓക്കെ

ആ ഹിമാലയൻ ആ ഓഫ്റോഡ് ടൈപ്പ് അങ്ങനത്തെ വെഹിക്കിൾസ് ആണോ സാർ നോക്കുന്നത് ആ ഓക്കെ നമുക്കൊരു ടൂ തൗസൻ്റ് തൊട്ട് സ്റ്റാർട്ടിങ്ങ് വരും സാർ അത് എന്താണ് പറയുക ബി ഡബ്ലുൻ്റെ ഇതൊക്കെയുണ്ട് ആ നമുക്ക് ആ മറ്റേ എന്താണ് പറയുക ത്രീ ടെൻ ഒക്കെയുണ്ട് ആ ജീ എസ് ഗ്രേഡ് ജീ എസ് ഉണ്ട് ഇല്ല സാർ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സ്റ്റോക്ക് ഉണ്ട് കാരണം നമുക്ക് എ വണ്ടികൾ എല്ലാം ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും അങ്ങനത്തെ ബുക്ക് ചെയ്യേണ്ട ബുക്ക് അങ്ങനത്തെ സീൻ ഒന്നും വരാനില്ല

ഇല്ലില്ല സാർ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും സാർ പ്രതീക്ഷിക്കേണ്ട നമുക്കതിൽ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും മ് ഓക്കെ ഓക്കെ സാർ സാർ വരുമ്പോൾ തന്നെ നമ്മളത് പ്രോവൈഡ് ചെയ്തിരിക്കും സാറിന് വേണ്ടിയിട്ട് ഓക്കെ സാർ അതും നമ്മൾ അറേഞ്ച് ചെയ്തോളാം ആ ഓക്കെ ഓക്കെ

ഓ സാർ അത് മതി സാർ വരുമ്പോഴത്തേക്കും ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആ വേണ്ട സാർ സാർ വരുമ്പോൾ പേ ചെയ്താൽ മതി സാറിൻ്റെ ഒരു ലൈസൻസിൻ്റെ ഏതെങ്കിലും പ്രൂഫും പിന്നെ പെയ്മെൻ്റും മാത്രം മതി